കരകൗശല മേഖല കൂടുതലായിട്ട് നമുക്ക് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പരിസ്ഥിതി സൗഹൃദ സാമഗ്രികൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ജനങ്ങൾക്കിടയിൽ അവർക്ക് അതിനുള്ള സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളുടെ അടുത്ത് കിട്ടുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഓല കൊണ്ടൊക്കെ നമുക്ക് പല കാര്യങ്ങളും പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്തു തരാറുണ്ട് അതേപോലെതന്നെ ചിരട്ട വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് നമ്മൾടെ വീട്ടിലും നമ്മുടെ അടുത്തും കിട്ടുന്ന ചൂടി അങ്ങനെയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള നമ്മുടെ കരകൗശല മേഖല നമ്മൾ വീട്ടിൽ തന്നെ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യാറുണ്ട് ചില പഴയ ആൾക്കാരൊക്കെ അതൊക്കെ ഒന്നും കൂടി നമ്മൾ ഇനിയുള്ള വരുന്ന തലമുറകൾക്ക് പറഞ്ഞുകൊടുത്ത് അവരതും കൂടി ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ കരകൗശല മേഖല ഒന്നും കൂടി പ്രദേശത്തുള്ള പാരിസ്ഥിതികമായ സുസ്ഥിരതക്കായി നിങ്ങളെ ഒന്നും കൂടി ചെയ്യാൻ പറ്റുംന്നാണ് തോന്നുന്നത്